ആ ഞാൻ അമൽ നീരദിൻ്റെ ക്ലാസ് ടീച്ചറാണ് സ്കൂളീന്ന് വിളിക്കുകയാണ് ആ കുറെ ദിവസമായിട്ട് അമൽ നീരദ് ക്ലാസ്സിൽ നോട്ട്സൊന്നും ക്ലിയറല്ല പിന്നെ ക്ലാസിലൊന്നും ശ്രദ്ധിക്കുന്നില്ല കുട്ടി ഒന്നും പഠിക്കുന്നില്ല എന്താണ് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുള്ളോണ്ടാണൊ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു എല്ലാ പ്രോ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കുന്നൊരു കുട്ടിയാണ് ക്ലാസ്സിലെ എല്ലാ ആക്റ്റിവിറ്റീലും പങ്കെടുക്കുന്ന കുട്ടിയായിരുന്നു പിന്നെ ക്ലാസ്സിൽ എല്ലാ പ്രാവശ്യത്തെ പരീക്ഷക്കും അവന് നല്ല മാർക്കും ഉള്ളതായിരുന്നു ഇപ്രാവശ്യം വന്നപ്പോഴത്തേയ്ക്കും ആൾ വളരെ സൈലൻറ്റുവാണ് ക്ലാസ്സിൽ അധികം ശ്രദ്ധിക്കുന്നില്ല എപ്പോഴും കളി കളി എപ്പോഴും കളിക്കണ കാര്യങ്ങൾ മാത്രവാണ് ചിന്ത ഇപ്പോൾ ഒരു ഫുട്ബോൾ ടീമിലക്കെ ചേരണമെന്ന് എൻ്റെടുത്ത് പെർമിഷൻ മാർ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഫുള്ള് ക്ലാസ്സിൽ ഫുട്ബോൾ ടീമിലൊക്കെ ചേർന്ന് ഇപ്പോൾ എപ്പോഴും ഫുട്ബോള് കളിക്കണമെന്നുള്ളൊരു ഇതിലാണ് ആൾ നടക്കുന്നത് അത് എന്ത് കൊണ്ടാണ് വീട്ടിൽ അങ്ങനെ പറഞ്ഞോ പഠിക്കണ്ടാന്ന് എന്തെങ്കിലും പറഞ്ഞോ ഫുട്ബോള് കളിച്ചാൽ മതീന്ന് ഇതിപ്പം ആള് അഞ്ചാം ക്ലാസ്സിലായില്ലേ അഞ്ചാം ക്ലാസ്സിലാവുമ്പേനും ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ അപ്പം ഇത്രേം വലിയ കുട്ടി ആവുമ്പോഴത്തേയ്ക്കും വലിയ വലിയ ക്ലാസ്സിലോട്ട് പോവുമ്പം നല്ല നല്ല രീതിയിൽ പഠിച്ചോണ്ടല്ലെ പോകണത് പക്ഷേ ആളിപ്പം ഓരോ ക്ലാസ്സും മുങ്ങും ആ ഞാനൊരു കാര്യം ചെയ്യാം എന്തായാലും ഞാൻ മോൻ്റെടുത്ത് ഒരിക്കൽ കൂടെ ഞാൻ കാര്യം പറയാം നല്ലതായിട്ട് പഠിക്കണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഒരു കാര്യം ചെയ്യു അടുത്ത ദിവസം ആ അമ്മയും കൂടെ മോൻ്റെ കൂടെ സ്കൂൾളൊന്ന് വരു എന്നിട്ട് അവൻ കഴിഞ്ഞ പ്രാവശ്യം അവനൊരു എക്സാം നടത്തിയതിൻ്റെ മാർക്കും കാര്യങ്ങളുവൊക്കെ ഞാൻ തരാം എന്നിട്ട് അവനെയും കൂടെ നിർത്തി നമുക്ക് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധ ഒന്ന് എന്താണ് നിൻ്റെ പ്രശ്നം അവൻ്റെ പ്രശ്നമെന്ന് നമുക്കൊന്ന് സംസാരിക്കാം എന്നിട്ട് ബാക്കി തീരുമാനങ്ങളെടുക്കാം ഓക്കെ ശരി അപ്പം നാളെ സ്കൂൾൽ കാണാം